മലയാളം സാധാരണ നമ്മൾ സംസാരിക്കുന്നു എങ്കിലും മലയാളം അറിയാം മേലാത്ത ആൾക്കാരുമായി നമ്മൾ ആശയ വിനിമയം നടത്തുമ്പോൾ ഇംഗ്ലീഷ് ഒരു യൂണിവേഴ്സൽ ഭാഷയായത് കൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മിക്കവാറും കുറച്ച് ആക്ഷൻ നമ്മൾ കാണിക്കും ഉടുപ്പ് ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈയ്യ് കൊണ്ട് ഇങ്ങനെ നല്ലത് എന്നുള്ളത് കാണിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും മിക്കവാറും നമ്മളുടെ ആക്ഷനുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും എനിക്ക് ഒരു മുംബൈ പോയപ്പോഴ് എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടും ഉണ്ട് അവിടെ അവർ ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ ആദ്യമായിട്ട് പോയതായിരുന്നു കടയിലെ ഷോപ്പിൽ സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്കിനും എനിക്ക് ശർക്കര മേടിക്കാനായിട്ട് ചേച്ചി പറഞ്ഞ് വിട്ടു അവിടെ ചെന്നപ്പഴത്തേക്കിനും ശർക്കരേൻ്റെ വാക്ക് ഹിന്ദി അറിയില്ല അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നത് കണ്ടു ഞാൻ അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഒരു ലൈറ്റ്സ് ഇതുപോലെയാണ് ഇരിക്കുന്നത് പക്ഷെ മധുരം ഉള്ളതാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്പ്ലൈൻ ചെയ്തു അപ്പം അവർക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോഴ് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഷേപ്പിലുള്ളത് മധുരം ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് മനസ്സിലായി അവർ എന്നെ എടുത്ത് കാണിച്ചു അപ്പോൾ അത് തന്നെയാണെന്ന് അവർ ഞാൻ പറഞ്ഞു അങ്ങനെ അവർ എനിക്ക് മേടിച്ചുകൊണ്ട് പോവാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ അനുഭവം എനിക്ക് മുംബൈ പോയപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും കൂടുതൽ ആംഗ്യ ഭാഷ ഉപയോഗിക്കുകയും കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ആശയവിനിമയം അനായാസമായി നടത്താവുന്നതാണ്